ഹോമിയോപ്പതി മരുന്നിനോടാണ് താൽപ്പര്യം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അസുഖങ്ങളെല്ലാം ഭേദമായിട്ടുണ്ട് പിന്നെ പനി വന്നാലും ഹോമിയോപ്പതിയാണ് കഴിവതും കഴിക്കല് പിന്നെ ഒരുവിധം വന്നാല് പനികള് വന്നാൽ ചിലപ്പോള് ചുക്കും കാപ്പി ഉണ്ടാക്കി കുടിക്കും അത് ചുക്ക് ചുക്ക് തുളസിയില പിന്നെ കുരുമുളക് മല്ലി മല്ലി പിന്നെ മഞ്ഞ മഞ്ഞള്പ്പൊടി ഇതെല്ലാം തിളപ്പിച്ചിട്ട് അങ്ങനെ ചുക്കുംകാപ്പി കുടിക്കും പിന്നെ കവിൾക്കൊള്ളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കവിൾക്കൊള്ളും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആണ് കവിൾക്കൊള്ളല്

ഹോമിയോപ്പതി മരുന്നാണ് കഴിക്കല് അതിനോടാണ് കൂടുതല് താൽപ്പര്യം അസുഖങ്ങളെല്ലാം ഭേദമായിട്ടുണ്ട് ഹോമിയോപ്പതി മരുന്നുകൊണ്ട്

ഇതിന് ആവിപിടിക്കും തുളസിയിലയും തുളസിയിലയും ഒക്കെ തുളസിയിലയും മഞ്ഞള്പ്പൊടിയിട്ടിട്ടും ആവിയും ആവിപിടിക്കും പിന്നേ അങ്ങനെയൊക്കെയാണ് ചെയ്യല്